വളരെ ചെറുപ്പത്തിൽ തന്നെ യാത്രയോടൊരുപാട് താല്പ്പര്യം കാണിച്ചിരുന്ന ഒരുപാട് യാ ഇഷ്ടപ്പെട്ടും ചെയ്തിരുന്ന ഒര് കാര്യമാണ് യാത്രാ എന്ന് പറയുന്നത് ബ അതും ബൈക്കുകള് ഒരുപാട് സ്ഥലങ്ങള് ഇതിനോടകം ഇതിനോടകം മെ കേരളത്തിൽ തന്നെ ഏതാണ്ട് പന്ത്രണ്ട് ജില്ലയോളം ജില്ലയോളം ബൈക്കില് യാത്ര ചെയ്ത് കവർ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടപ്പം അത്തരത്തില് വളരേ എന്താ പറയുക

സോളോ റൈഡ്നേക്കാളും കൂടുതൽ ഒറ്റയ്ക്ക് പോവുന്ന റൈഡ്നേക്കാളും കൂടുതൽ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്റെ സുഹൃത്തക്കളോട് കൂടെ പോകുക തന്നെയാണ് അപ്പം അതിന് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ കൂടെ ബൈക്കിൽ പോകുന്നാത് വേറെ തന്നെയാണ് ഒരു എന്താണ് ഫീലാണ് വേറെ തന്നെയൊരു രസമാണ് കാരണം ഒരുപാട് തമാശകളും കാര്യങ്ങളും നമുക്ക് അത് അത്തരത്തില് അതല്ലാതെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ അല്ലാതെ റൈഡേസിന്റെ കുറച്ച് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്തരത്തിൽ നമുക്ക് യാതൊര് പരിചയമില്ലാത്ത വേറെ പല പല സ്ഥലത്ത് നിന്നും പല പല ജില്ലകളില് നിന്നും വരുന്ന റൈഡേസുവായിട്ട് പരിചയപ്പെടുകയും അവരുവായിട്ടേതേലും സ്ഥലത്തോട്ട് പോകുകയോ അതുപോലെ മൂന്ന് ദിവസം താമസിക്കുകയും അതുപോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വരിക അപ്പം അത്തരത്തിൽ ഉള്ള അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരത്തില് നമ്മൾ കുറച്ച് നം അത്തരത്തിലെനിക്കിഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളാണ് നമ്മുടെ കോട്ടയം ജില്ലയില് വരുന്ന കട്ടിക്കയം അതുപോലെ ഇല്ലിക്കക്കല്ല് പിന്നെ വര്ക്കല ഇത്തരത്തില് പല പല സ്ഥലത്ത് നമുക്ക് യാതൊര് പരിചയമില്ലാത്ത ആള്ക്കാരെ നമ്മളൊരു ദിവസം ഒര് നാള് നമ്മള് പ്ലാന് ചെയ്ത് വിളിക്കുന്നു അത്തരത്തില് അതുകഴിഞ്ഞവരുവായിട്ട് പരിചയത്തില്പ്പെടുന്നു പല പല ജില്ലയിലുള്ള ആള്ക്കാരുവായിട്ട് പരിചയത്തിൽ പ്പെടുന്നു നമുക്കൊരു പിന്നീട് നമുക്ക് ഭാവിയിൽ അതൊരു നമ്മളൊരു സ്ഥലത്തല്ലേ ഒര് സ്ഥലത്ത് പോയിക്കഴിഞ്ഞാല് നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് അവരെ നമ്മ സഹായത്തിനായിട്ട് തേടാന് അങ്ങനെ കുറെ നം ഉപകാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈയൊരു യാത്രക്ക് വേണ്ടി പ്ലാന് ചെയ്യാനൊരുപാട് തയ്യാറെടുപ്പെടുക്കും എന്നെ സംബന്ധിച്ചിടത്തോള ഒര് യാത്രക്ക് പോകുന്നതിന് മുമ്പൊരു രണ്ടോ മൂന്നോ മാസം മുമ്പ് തന്നെ ആ ഒരു യാത്ര പ്ലാൻ ചെയ്യും കാരണം അത്യാവശ്യം നല്ലൊരു വലിയ പ്ല യാത്ര തന്നെ ആയിരിക്കും പ്ലാന് ചെയ്യുന്നത് എന്നിട്ട് ഒര് രണ്ടോ മൂന്നോ മാസം മുമ്പ്തന്നെ അതിനുള്ള തയാറെടുപ്പുകൾ എടുക്കുകയും ചെയ്യും കാരണം നമുക്ക് ഒര് യാത്ര ചെയ്യുന്നതിന് ഒരുപാട് കാലം നമുക്ക് നോക്കണം നമക്ക് താമസം അതുപോലെ നമ്മുടെ ഫുഡ്ഡിന്റെ കാര്യം പെട്രോളിന്റെ കാര്യം പിന്നെ ബാക്കി വണ്ടിയുടെ കാര്യം അങ്ങനൊരുപാട് കാര്യങ്ങള് നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഒരു ബൈക്കിങ്ങിന് മേഖലയിലോട്ടല്ലെങ്കിൽ ഒര് റൈഡിങ് മേഘലയിലോട്ട് വരുമ്പം നമുക്ക് ശ്രദ്ധിക്കണ്ടതായിട്ടുണ്ട് അപ്പം അത്തരത്തില് ഇതുപോലുള്ള കാര്യങ്ങള്ക്ക് ഒര് തയ്യാറെടുപ്പായിട്ട് മൂന്ന് മാസം മുൻപ് തന്നെ തയ്യാറെടുക്കുകയും അതിന് ആ ഒര് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയും അങ്ങനെ കാലം കുറച്ച് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി കൊച്ച് കൊച്ച് ഫാ എന്താ കിട്ടുന്നത് പോലെ കൊച്ച് കൊച്ച് പൈസകള് അതുപോലെ ഈ ചില്ലറ കാര്യങ്ങളാ എല്ലാം നമ്മള് ഒരു പെട്ടിയിലോട്ട് സേവ് ചെയ്ത് എന്താണ് ശേഖരിച്ച് ശേഖരിച്ച് ശേഖരിച്ച് വെച്ചാണ് ഈയൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ അതൊരു നല്ലൊരു എമൌണ്ട് ആകുകയും അത് നമ്മുടെ യാത്രയ്ക്ക് നമുക്ക് എടുക്കുകയും യാ വളരെയധികം സഹായപ്രദമാകുകയും ചെയ്യും ഒരു സൈഡ് സൈഡായിട്ട് നമ്മളങ്ങനൊരു ഇൻകം നമ്മള് കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ എന്താണ് തിരക്കേറിയ ഷെഡ്യൂൾ എങ്ങനെയാ സമയം കണ്ടെത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇത്പോലെ നമ്മള് പ്ലാന് ചെയ്യുന്നുണ്ട് നമ്മൾ കാരണം നമ്മള് ഈ ഒരു യാത്ര പോകുന്നതിന് മൂന്ന് മാസം മുമ്പ് മൊട്ട് തൊട്ട് തന്നെ നമ്മള് ആ ഒര് ഡേറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക അത്കഴിഞ്ഞാൽ ഡേറ്റ് കഴിഞ്ഞിട്ടൊര് മുപ്പാ പത്ത് ദിവസത്തേക്ക് എന്താ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങള് വരാന് ചാന്സ് ഉണ്ട് ഇതെല്ലാം നോക്കി അല്ലെങ്കില് എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടൊരാൾക്ക് ഉണ്ടെങ്കിൽ അതി നൊര് പരിഹാരം നമ്മള് അത് ആ ഒര് യാത്ര പോകുന്നതിന് മുമ്പ്തന്നെ കണ്ട് വെച്ചിട്ടാണ് എന്താണ് നമ്മളൊരു യാത്രയിലോട്ട് തുടങ്ങുന്നത് അപ്പം അത്തരത്തിൽ തിരക്കേറിയ ഷെഡ്യൂള്കള് ഇത്തരത്തിലാണ് അന്ന് ചെയ്യ്ന്ന അപ്പം നേരത്തേ കണ്ടെത്തുക അതിനൊര് പോംവഴി കണ്ട് പിടിക്കുക അപ്പം അത് മാത്രമാണ് ചെയ്യാന് ചെയ്യുന്നത് അത് ചെയ്യുക അങ്ങനെ വെക്കുക പിന്നേ എക്സ്പീര്യന്സിനേക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് നമ്മള് യാതൊര് പരിചയവില്ലാത്ത ആള്ക്കാരെ നമ്മള് പെട്ടന്നൊര് ഗ്രൂപ്പായിട്ടൊര് പത്തോ പതിനഞ്ചോ ഇരുപതോ പേരടങ്ങുന്ന ഒര് ഗ്രൂപ്പായിട്ട് നമ്മള് പല പല സ്ഥലത്ത് നിന്ന് വരുന്ന ആള്ക്കാരെ ഇങ്ങനെ കൂടുമെന്ന് പറഞ്ഞ് ഒരുമിച്ച് കൂടിയിട്ട് അത് അവരുമായിട്ട് നല്ല രീതിയിൽ മിംഗിൾ ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ച് അവരുവായിട്ട് പരിചയപ്പെട്ടും ഭയങ്കര ഒരു പ് ഒരു ബൈക്കിങ്ങെന്ന് പറഞ്ഞൊരു വേള്ഡ് വൈഡ് നമുക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യാം കാരണം ഒരുപാട് കാര്യങ്ങള് നമുക്ക് ബൈക്കിങ്ങിലൂടെ പഠിക്കാൻ പറ്റും നമ്മള് പല ജീവിത ശൈലികൾ പല ജീവിത സംസ്കാരങ്ങൾ നമ്മളുടെ ആൾക്കാരുടെ ഓരോ അത് അത്തരത്തിലതല്ലാതെ എന്താണ് പല പല ടൂറിസ്റ്റ് സ്പോട്ടുകൾ അതുപോലെ നമ്മളിതുവരെ നമ്മള് കാണാൻ പറ്റാത്ത പല തരത്തിലുള്ള സ്പോട്ട്കളും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാൻ പറ്റും അപ്പം അത്തരത്തില് ബൈക്കിങ് എന്ന് പറഞ്ഞൊരു വളരെ വലിയൊരു മേഘലയായിട്ട് നമുക്ക് കറാം കാരണം വാ റൈ അത്തരത്തില് നമുക്ക് റൈഡേസ്ന് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡിന്റെ കുറച്ച് വൃത്തിയില്ലായ്മ് അതുപോലെ അപ്പം പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങള് റൈഡേസിന്റെ യാത്രയ്ക്ക് ഒരിതുണ്ട് പിന്നെ പിന്നെ ബൈക്കിങ് യാത്രയില് ഏറ്റവും നമുക്ക് എല്ലാ റൈ അതായത് എല്ലാം ഒരു ഡ്രീം ബൈക്കേസിന്റെ യാ സ്വപ്നം എന്ന് പറയുന്നത് മണാലിയാണ് അപ്പം മണാലി പോകുക അതായത് കുളു മണാലി പോകുന്നതാണ് എല്ലാ റൈഡേസിന്റെയും ഒരു സ്വപനം എന്ന് പറയുന്ന ഒരു ഡ്രീമെന്ന് പറയാന് നമുക്ക് പറ്റിയൊര് കാര്യം കാരണം അതൊരൊന്നൊന്നര യാത്ര തന്നെയാണ് നമ്മള് എന്താ പറയുക മണാലിയിലോ പോകാം അത് ഒരു സോളോ ട്രിപ്പോ കൂട്ടുകാരുടെ കൂടെ എങ്ങനെ വേണേലും നമുക്ക് പോകാം എങ്ങനെ പോയാലും നമ്മുടെ മനസ്സ് നറകീന്ന രീതിയിലാണ് അത് റൈഡേസിന്റെ സ്വര്ഗ്ഗമെന്ന് നമുക്ക് പറയാം അല്ലെങ്കില് ആ അതെ അത് തന്നെ അതായത് സ്വര്ഗ്ഗമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലമാണ് ഈ പറയുന്ന കുളു മണാലിയിലേക്കുള്ള യാത്ര അപ്പം അങ്ങനെ